എൻ്റെ ഗ്രാമത്തിലുള്ള വ്യവസായങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ കൂടുതലായിട്ടും വ്യവസായരീതിയിൽ അത്ര മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമം അല്ല എന്റേത് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഉള്ളത് പിന്നെ അല്ലാതെ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവൊന്നുമല്ല കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നവരുണ്ട് കൃഷിക്ക് ശേഷം അവിടെ ഒരു വ്യവസായം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കൃഷി വ്യവസായത്തിൽ ഉൾപ്പെടാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ഗ്രാമത്തിൽ പിന്നെ നോക്കുവാണെങ്കിൽ വ്യവസായത്തിലുള്ള ഒന്നോ രണ്ടോ ഓരോ കയ്യിൽ എണ്ണാൻ പറ്റുന്ന അത്ര ആൾക്കാർ മാത്രമാണ് വ്യവസായത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു മൽസ്യ വ്യവസായമുണ്ട് കാരണം ഇവിടെ ഒരു പുഴയുടെ അടുത്തായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മത്സ്യം വ്യവസായം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു വ്യവസായ രീതി അല്ലാണ്ട് കടകൾ പലചരക്ക് പച്ചക്കറികൾ ഒക്കെ ചെയ്യുന്ന ആൾകാരുടെയൊക്കെ എണ്ണവും അധികം മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ പശു വളർത്തലാണ് എവിടെ കൂടുതലായിട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ പശു അവയിൽ നിന്ന് കിട്ടുന്ന പാൽ ഉല്പന്നങ്ങളുടെ വ്യവസായം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ നടന്ന് പോകാറുണ്ട്